സാങ്കേതിക വിദ്യ വന്നതുമൂലം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മാറ്റം വരുത്തേണ്ടി വന്നിട്ടുണ്ട് സാധാരണയായി നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഒരു അധ്യാപിക ആയതുകൊണ്ടു തന്നെ കുട്ടികൾക്ക് നോട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ആ നോട്ട് തന്നെ നമ്മൾ ക്ലാസ്സ് നമ്മളെ അധ്യാപന ശൈലി ലുള്ള ഒന്നുകിൽ നോട്ട് പ്രിപയർ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് പി ഡി എഫ് ആക്കി കൊടുക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ട് അത് സാങ്കേതിക വിദ്യയുടെ ഒരു നേട്ടം തന്നെയാണ് പിന്നെ അതു കൂടാതെ സാങ്കേതിക വിദ്യയിൽ അപ്പുറം തന്നെ കൊറോണ വന്നതിനു ശേഷം ഓൺലൈൻ ആയിട്ടും പല കാര്യങ്ങളും ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്ക് പഠിക്കേണ്ടി വന്നു അത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അധികം മാറ്റങ്ങൾ സൃഷ്ട്ടിച്ചു കഴിഞ്ഞു കുട്ടികൾ ഡൌട്ട് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് അതായത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു കൊണ്ടു തന്നെ ഫോൺ വിളിക്കാതെ വീഡിയോ കോളിലൂടെ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്രസൻ്റേഷനിലൂടെ തന്നെ എനിക്ക് അവരുടെ സംശയങ്ങൾ നിക് സംശയങ്ങൾ തീർക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ളുവൻസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം സാങ്കേതിക വിദ്യയിലൂടെ പിന്നെ അതുകൂടാതെ നമുക്ക് എപ്പം വേണമെങ്കിലും ആരെയും കോൺടാക്റ്റ് ചെയ്യാനും നമുക്ക് എന്ത് ആശയ വിനിമയം നടത്താനും വളരെ അധികം സാധ്യമാണ് ഇപ്പോൾ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ളത് അതു കൂടാതെ പല പരീക്ഷകളും അപ്ലിക്കേഷൻ ഫോമ് അതായത് നമ്മളുടെ അപേക്ഷ ഫോം കൊണ്ടു കൊടുത്ത് നമ്മൾ ഒരു അഡ്മിഷന് വേണ്ടി ആണെങ്കിൽ പല കോളേജുകളിലും പല എല്ലായിടത്തും പോയി അപ്ലിക്കേഷൻ ഫോം വാങ്ങി ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഇന്ന് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് അത് ഓൺലൈൻ ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എത്ര കോളേജിലോ എത്ര സ്കൂളുകൾക്കോ എവിടെ ഏത് ഇൻസ്റ്റിട്യൂഷനിലേക്കോ നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം അത് അനുസരിച്ച് അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുന്നു ഇതൊന്നും ഒരു യാത്ര ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് മാറി കഴിഞ്ഞിരിക്കുന്നു ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഉപകാരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു